നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ പ്രദേശത്ത് ആരോഗ്യ നിലവാരം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം പരിതാപകരമാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എൻ്റെ താമസസ്ഥലം എന്ന് പറയുന്നത് കാസർഗോട് ജില്ലയിലെ കല്ലാറി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ സൗകര്യം എന്ന് പറയുന്നത് കൂടംകല്ല് താലൂക്ക് ഹോസ്പിറ്റലാണ് പക്ഷേ അവടെ നമുക്ക് വേണ്ട എല്ലാ ആരോഗ്യ ശുശ്രൂഷ സംവിധാനങ്ങളുടെയും ആ പാപം ഞങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് ഞങ്ങൾക്കൊരു കൃത്യമായ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങള് ഉറപ്പ് വരുത്താൻ ഈ നാട്ടിലെ ഗവൺമെന്റുകൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഞങ്ങൾ ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാത്തിനും ഉള്ള ചികിത്സ ലഭിക്കാത്തതിനാൽ ഞങ്ങൾ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂറിലധികം യാത്രയുള്ള ഒരു ഹോസ്പിറ്റൽസിലേക്ക് പോകണ്ടി വരും അതും അതിൽ കൂടുതൽ സീരിയസ് ആയ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ ആശ്രയിക്കേണ്ടി വരും ഉദാഹരണത്തിന് പെരിയാരം മെഡിക്കൽ കോളേജ് ഇതിൽ കണ്ണൂര് മെഡിക്കൽ കോളേജായിട്ടതിനെ അംഗീകരിച്ചിട്ടുണ്ട് ആ കോ അവിടത്തേക്കാണ് ഞങ്ങൾ കൂടുതൽ എമർജൻസി പരമായ ഏതെങ്കിലും അവസ്ഥക്ക് പോകേണ്ടിയാൽ ഞങ്ങളുടെ കേരളത്തിലെ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ നിലവാരം കുറച്ചും കൂടെ ഉയർത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ഇപ്പം ഡയാലിസിസ് പേഷ്യൻസിനായാലും അവർക്ക് വേണ്ടുന്ന രീതീലുള്ള ഡയാലിസിസ് സംവിധാനം ഉറപ്പ് വരുത്താൻ ഈ നാട്ടിലെ ഗവൺമെന്റിനോ സർക്കാർ സ്ഥാപനങ്ങൾക്കോ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കോ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കേരളത്തിലെ എല്ലാ റൂറൽ എർ ഏരിയേലുള്ള എല്ലാ ജനങ്ങൾക്കും അവർക്ക് വേണ്ട ആവശ്യമായ ഹോസ്പിറ്റൽ സൗകര്യം സൗജന്യമായി ചെയ്ത് കൊടുക്കേണ്ട നിലയിലേക്ക് ഇവിടുത്തെ സർക്കാർ വളരേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് ഡയാലിസിസ് ഹൃദയസംബന്ധമായ രോഗങ്ങൾ ക്യാൻസറിൻ്റെ ഏർലി സ്റ്റേജ്സ് കിഡ്നി ലിവർ സംബന്ധമായ രോഗങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ രോഗത്തിനും വലിയ ചികിത്സ ആവശ്യമായിട്ട് വരുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു മൾട്ടി സ്പെഷ്യലിറ്റി ഹോസ്പിറ്റൽ ചുരുങ്ങിയ ചിലവില് സാധാരണക്കാർക്കും ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാഹന സൗകര്യങ്ങളോടുകൂടി എത്താൻ പറ്റുന്നൊരു സ്ഥലത്ത് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും മാറ്റി വച്ച് അവർക്കുള്ള ചിലവ് വളരെ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ സ സമൂഹത്തിലെ ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും വേണ്ട മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പള് തന്നെ നമ്മൾക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാല് നമ്മള് ചികിത്സക്ക് വേണ്ടി തൊട്ടടുത്തുള്ള പട്ടണങ്ങളിലേക്ക് ചെന്ന് എത്തേണ്ടതായിട്ട് വരുന്നു ഇതിപ്പം ഞാൻ ഇന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ കാര്യം മാത്രമാന്ന് പറയുന്നില്ല ഞങ്ങളെക്കാൾ കൂടുതൽ ദൂരത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് എത്താൻ കഴിയാതെ മരിച്ച ഒരുപാട് കുടുംബങ്ങള് പട്ടിണിയിലായ ഒരുപാട് പേര് കേരളത്തിലുണ്ട്

ഇതിനെ ഇതിനെ കുറിച്ച് ഒരു സർവ്വേ നടത്തേണ്ടതും ഇതെങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെന്റ് ആൻഡ് എങ്ങനെയാണിതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു സൊസൈറ്റിയെ അല്ലങ്കില് ഒരു സ്ഥാപനത്തെ അതല്ലങ്കിൽ ഈ നാട്ടിലെ സോഷ്യൽ വർക്കേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർവ്വേ നടത്തുകയും ജനങ്ങളിൽ നിന്നിതുപോലെയുള്ള നിരീക്ഷണങ്ങളും അവരുടെ വിലയിരുത്തലുകളും സ്വീകരിച്ച് അത് ഗവൺമെന്റിലേക്ക് അയച്ച് കൂടുതൽ ജനങ്ങളുടെ പ്രശ്നം കൂടുതലായിട്ട് സർക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യമില്ലാതെ നമ്മൾ എത്രത്തോളം പണം സമ്പാദിച്ചിട്ടും കാര്യമില്ല നമ്മുടെ പ്രൈമറിയായിട്ടുള്ള നമ്മുടെ നീഡില് നമ്മുടെ ആരോഗ്യത്തിനു വലിയ പങ്ക് ഉണ്ട് ചെറിയ രോഗങ്ങള് ഏർലി സ്റ്റേജസ്സിലെ കണ്ട് പിടിക്കാതെ അതിൻ്റെ മൂർദ്ധന്യാവസ്ഥയിൽ എത്തിയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥേയില് എത്തുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രശ്നം പരിഹരിക്കാനെന്ന വണ്ണം ഈ നാട്ടിലെ ഗവൺമെന്റും ബാക്കി സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുമായി ഒരു ടൈയപ്പ് നടത്തി വർഷത്തിലൊരു രണ്ടോ മൂന്നോ നാലോ തവണ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് അവർക്ക് പൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ സൂചന കിട്ടുന്നൊര് അസുഖത്തിന് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടവരെ ചെക്ക് അപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലവർക്ക് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ മുൻനിർത്തി അവർ ചിലപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യാൻ വരെ മടി കാണിക്കുന്ന കുടുംബങ്ങളുണ്ടാവും അപ്പം എന്ത് ചെയ്യും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പ അവര് കുറെ ടെസ്റ്റിന് എഴുതി കൊടുക്കും അപ്പം ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസയാകുന്ന കൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യാനുള്ള പൈസ എങ്കിലും ഗവൺമെന്റിൻ്റെ സബ്സിഡി വഴിയോ അല്ലങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് വഴിയോ അതിനു വേണ്ടി പുതിയ സ്കീമുണ്ടാക്കീട്ട് ഇതിനു വേണ്ട കാര്യങ്ങള് അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ചികിത്സയ്ക്കുമൊരു ടെസ്റ്റിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനി നഗരപ്രദേശങ്ങളിലും കൂടുതലായിട്ടതിന് മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഗ്രാമ ഗ്രാമപ്രദേശങ്ങളില് കൂടുതലായിട്ട് മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം നഗരപ്രദേശങ്ങളില് വസിക്കുന്ന ചില ആൾക്കാർക്ക് അതിനുള്ള അവൈലബിളിറ്റി അവർക്ക് കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകൈകള് എടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും പിന്നെ എല്ലാ ഹോസ്പിറ്റലും എല്ലാ സർക്കാർ ഹോസ്പിറ്റലും എല്ലാ താലൂക്ക് ഹോസ്പിറ്റലും ചികിത്സാ സൗകര്യങ്ങളുടെ മേന്മ കുറച്ചും കൂടി കൂട്ടേണ്ടതായിട്ടുണ്ട് ചികിത്സിക്കത്തൊരകലം സൗകര്യങ്ങള് മാത്രം കൂട്ടിയ പോരാ അവരുടെ പ്രാഥമികമയിട്ടവർക്ക് വേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടുത്തെ ബാത്രൂം ഫെസിലിറ്റീസ് അവിടുത്തെ വാർഡ്കള് ഇതൊക്കെ കൂടുതല് മെച്ചമാക്കേണ്ടതായിട്ടൊണ്ട് അവർക്ക് സൗജന്യം പരമാവധി സൗജന്യമായിട്ടുള്ള ആരോഗ്യസമൃദ്ധമായ എല്ലാ അസുഖങ്ങൾക്കും സൗജന്യമായിട്ടുള്ളൊരു കാര്യങ്ങള് ചെയ്യേണ്ടതായിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം ഇതിനു മുൻകൈ എടുത്തിട്ട് വേണം നമ്മുടെ സർക്കാരുകളും ജനപ്രതിനിധികളും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം അവർക്ക് സൗജന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ചെക്കപ്പ് ആയാലും അവരുടെ ചികിത്സ സംബന്ധമായ ബാക്കി മരുന്നിനും കൺസൾട്ടൻസിക്കും എല്ലാത്തിനും കാര്യമായി രീതിയിലുള്ള സംഭാവനകള് എല്ലാവരും നടത്തേണ്ടതായിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടും പറയാനുള്ളത് ചികിത്സ കിട്ടാതെ മരിച്ച് പോയവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ ഇല്ലാണ്ട് മരിച്ചവർക്ക് എന്തെങ്കിലും തരത്തിലൊള്ള ക്യാഷോ അവർക്കെന്തെങ്കിലും ഒരു ആശ്വാസ പ്രവർത്തനങ്ങള് ചെയ്യാൻ പറ്റിയാ അവരുടെ കുടുംബത്തിന് അതൊരു വലിയൊരാശ്വാസം ആയിരിക്കും പിന്നെ ഇനി വരുന്ന ജനപ്രതിനിധികളായാലും സാമൂഹ്യ പ്രവർത്തകരായാലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റൽസിന്റേം നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങള് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതിന് വേണ്ടി ജീവിതമുഴിഞ്ഞു വച്ച ഒരുപാട് മഹാരഥന്മാർക്ക് വേണ്ടി നന്ദിയറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്